കൂടുതലായിട്ടുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിന്നും നൽകണം അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതെന്താണെന്ന് വച്ചാൽ ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ പോലും ഇപ്പോൾ ഒരു പ്ലസ്റ്റു വരെ പഠിച്ച മറ്റുള്ള പഠിപ്പിന് ഒന്നികിൽ നല്ല മാർക്കുള്ളവർക്കു മാത്രമേ മറ്റു സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലേയ്ക്ക് സീറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല പണം വേണം എങ്കിലേ നമുക്കൊരു നല്ലൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പഠിപ്പ് നമ്മൾക്ക് നമ്മുടെ മക്കൾക്കാണെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതലായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആശാരിപ്പണി പ്ലംബിംഗ് തുന്നൽ കോഴി വളർത്തൽ മൃഗസംരക്ഷണം എന്നിവയൊക്കെ നൽകിയാലേ അത് അവർക്ക് അവരുടെ ജീവിത അവരുടെ ഫ്യൂച്ചറിലേക്കതൊരു ഒരു നല്ലൊരു ഒരു വിദ്യാഭ്യാസം തന്നെയായിരിക്കും അതിനെപ്പറ്റിയിട്ടൊക്കെ അത് പഠിക്കാൻ പറ്റിയാൽ ഇപ്പം നമുക്ക് വലിയൊരു ജോലി കിട്ടിയില്ലെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയ പ്ലംബിംഗ് പോലുള്ള വർക്കുകൾ അതുപോലെ തുന്നൽ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരുപോലെ തുന്നൽ തുന്നൽ ടൈലേഴ്സുണ്ട് ഇപ്പോൾ നമ്മുടെ ടൗണുകളിലാണെങ്കിലും ഒരു ഒരാൾ മെയിനാളായിട്ട് ഒരുപാട് ഷോപ്പുകളിങ്ങനെ തുണിത്തരങ്ങളൊക്കെ തുന്നി കൊടുക്കുന്നുണ്ട് ഇപ്പൊൾ ചുരിദാറിന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ല ഒരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അത് അപ്പം നമുക്കിപ്പം വലിയ ജോലി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈയൊരു അറിവ് ഈ ഒരു തുന്നൽ പണിയോ അല്ലെങ്കിൽ പ്ലംബിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തമായ കാര്യത്തിനും അതുപോലെ മറ്റുള്ള വീടുകളിൽ പോയി നമ്മുടെ ഒരു ജോലിയായിട്ടും നമുക്ക് അതിനെ കാണാം ഇപ്പം മൃഗസംരക്ഷണം എന്നൊക്കെ പറയുമ്പം നമ്മുടെ വീട്ടിലൊക്കെ കോഴിവളർത്തിയും അതുപോലെ കാലീനെ വളർത്തുന്നതൊക്കെ നമുക്കൊരു ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട്ടിൽ ഒരു ഒരു പശു ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുപോയി പാലു വാങ്ങേണ്ട ആവശ്യമില്ല അതുപോലെതന്നെ കോഴി ഒക്കെ ഉണ്ടെങ്കിൽ മുട്ട പുറത്തുപോയിട്ട് ഇനിയിപ്പോൾ നല്ല ഏത് ഇപ്പോൾ നാടൻ മുട്ടയെന്ന് പറഞ്ഞ് ഒരുപാട് വിപണിയിൽ ഒരുപാട് മുട്ടകളുണ്ട് അതിപ്പോൾ പിന്നെ ഒരു കളറ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന മുട്ടയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെതന്നെ ഈയൊരു കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നും അതിനെപ്പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് പിന്നീട് ഭാവിയിലേക്കൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്